ഇപ്പോഴത്തെ വാർത്തകളിൽ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങള് ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ ചുരുക്കമാണ് നമ്മുടെ സ്കൂൾ യുവജനോത്സവം കോളേജ് കോളേജുല്സ് കലോത്സവങ്ങൾ അതുപോലെ സ്പോർട്സ് മീറ്റ്കൾ അല്ലെങ്കിൽ ഇന്നലെ സ്കൂൾ തല് സ്കൂള് സ്കൂൾ തല സ്കൂൾ തലത്തിലും സ്കൂൾ തലത്തിൽ കോളേജ് തലങ്ങളിലൊക്കെ നടക്കുന്ന കലോത്സവങ്ങൾ ഉത്സവങ്ങൾ അങ്ങനെത്തെ അങ്ങനെ ഓരോ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ലാതെ അധികം വാർത്തകളിൽ സാംസ്കാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ മാധ്യമങ്ങളില് ഇപ്പോഴെത്തെ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ കൊലപാതകം റേപ്പ് അതുപോലെ ലഹരി മദ്യപാനം ഡ്രഗ്സ് ഇങ്ങനെത്തെ ഓരോരോ ഇങ്ങനെ ഇങ്ങ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് വാർത്തകൾ ചെയ്യുന്ന വാർത്തകൾ ചെയ്യുന്നവ അവതരിപ്പിക്കുന്നത് ശരിയാണ് കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ എങ്കിലും എന്തെങ്കിലുമൊക്കെ സാമ്യം വളരെ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ് ഇങ്ങനെ എന്തെങ്കിലും ഉത്സവങ്ങൾ കലോത്സവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെത്തന്നെ ഇപ്പോൾ ഒത്തിരി കുട്ടികളും ഇങ്ങനെ ഇങ്ങനെ കലോത്സവങ്ങള് ഇങ്ങനെ കലാകായിക കലാ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പങ്കെടുക്കുന്നതൊക്കെ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്നു അതും അതും ഇങ്ങനെത്തെ വാർത്തകൾ വാർത്തകൾ ചുരുങ്ങുന്നതിനുള്ള കാരണമാകുന്നു എന്നാൽ എങ്കിലും എവിടെയ് നടക്കുന്ന ചില വിഷയങ്ങൾ ചിലപ്പോഴെങ്കിലും അവർ അവർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട് അതു അതുകൊണ്ട് തന്നെ ഈ ഈ വാർത്തകളിൽ നമ്മുടെ ദിനപത്രങ്ങളിൽ പോലും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ് നമ്മുടെ ദിനപത്രങ്ങളിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ട് അതായത് നമ്മൾ ഇപ്പം പത്രത്തിലൊരു വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് വേറെ ആരും വന്ന് ചെയ്യുന്നതല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൊടുക്കുന്നു നമ്മൾ നമ്മൾക്ക് വേണം നമ്മളെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളത്തിൽ മറ്റുള്ളവർ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും വളരെ നല്ല കാര്യമല്ലെങ്കിൽ കലാകായിക രംഗത്ത് നമ്മളൊരു നേട്ടം നേടി എന്നുണ്ടെങ്കിൽ അതറിയിക്കുന്നതിന് പണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെയാണ് ദിനപത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡികളിൽ വരുന്നത് വളരെ കുറവാണ് സാംസ്കാരിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വളരെ ഇതേപോലെ കലാ കലാപരമായ കാര്യങ്ങൾക്കും കായികപരമായ കാര്യങ്ങൾക്കും വളരെ പ്രധാന്യം കൊടുക്കുന്നത് ഒരു ജില്ലാ കലോത്സവം അല്ലെങ്കിൽ സംസ്ഥാന കലോത്സവം അല്ലെങ്കിൽ സംസ്ഥാന കായിക മീറ്റ് നാഷ്ണല് കായിക മീറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് ഇപ്പം നടക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അതിപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം ഇപ്പോൾ മാധ്യമങ്ങൾ നിരന്തരം ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന തിന്മകൾ അതായത് ഡ്രഗ്സ് ലഹരി ആൽക്കഹോൾ മദ്യപാനം പുകവല്ലി കൊലപാതകങ്ങൾ റേയ്പ്പ് ആൾക്കാരുടെ മനസ്സിലെ പകയൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എങ്കിലും ചിന്തിക്കാന് പറ്റുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് പിന്നെ പല കുട്ടികളും ഇപ്പോൾ സാംസ്കാരിക വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിനാവശ്യമായ കാര്യങ്ങളിൽ കുട്ടികൾ പറയാൻ പോലും മറന്ന് പോകുന്നു അവര്ക്ക് ഫോൺ എന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ അവര് മുഴുവൻ മുഴുസമയം എന്നവണ്ണം തന്നെ അവർ ഡിജിറ്റൽ ഡിജിറ്റൽ ആയിട്ട് തന്നെ പോകുന്നു അവർ അധികം അവരുടെ എല്ലാ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദൈവം എങ്കിലും എല്ലാ എല്ലാവർക്കും ഒരു കഴിവുണ്ടാകും അത് പല കുട്ടികളും തിരിച്ചറിയുന്നില്ല അവർക്ക് ചിലപ്പം പ്രസംഗിക്കാനോ കലാപരമായോ കായികപരമായോ കഴിവ് കഴിവുള്ളവരാകാം എങ്കിലും അവർ അത് തിരിച്ചറിയുന്നില്ല തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇതൊന്ന് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഒരു മുന്നിരയിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ അതിനവരെ അതിന് അവർ തന്നെയാണ് ഒരു തടസം ഒരു ഒരു പരിധി വരെ അവർ തന്നെയാണ് തടസ്സം നിൽക്കുന്നത് പിന്നെ മടി അല്ലെങ്കില് ഞാന് ഓരോരുത്തര്ക്കും മടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയാ എന്നും പറഞ്ഞ് അവർ ചെയ്യാറില്ല അതുപോലെ സാമൂഹികപരമായ സാമൂഹ്യത് സമൂഹത്തിലൊരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാൻ പല കുട്ടികളില് നിന്നും പല കുട്ടികളും ഇന്ന് തയ്യാറാകുന്നില്ല കലാരംഗത്തോട്ടോ കായികരംഗത്തോട്ടോ പല കുട്ടികളും ഇറങ്ങാൻ മടി ഇറങ്ങാൻ മടിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ് പിന്നെ